ഞാൻ ഈ ട്രിപ്പിൻ്റെ പാക്കേജിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി വന്നത് ആണേ ഹിൽ സ്റ്റേഷൻസ് പോലെ ഉള്ള നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഏത് ആയിരിക്കും നല്ലത് വയനാട് മാത്രമെ ഉള്ളു പിന്നെ വേറെ മൂന്നാറ് അതൊക്കെ നല്ലത് അല്ലേ എ രണ്ട് റൂമ് ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു എട്ട് പേർ പാരൻറ്റ്സ് ഉണ്ടാവും ഏജ്ഡ് ആയിട്ട് ഏജ്ഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത് ട്വൻറ്റി ടു തേർട്ടി ഏജില് വരുന്നത് പിന്നെ അതിന് ബോയ് ആയിട്ട് ഒരു നാല് പേർ ഉണ്ടാവും പിന്നെ കുറച്ച് പിള്ളേർ ഉണ്ട് ഒരു ആറ് പിള്ളേർ ഉണ്ടാവും അപ്പോൾ ഈ ആൾക്കാർക്ക് അനുസരിച്ച് ഒരു റൂമിൽ ഒരു നാല് പേർ പറ്റുന്ന രീതിയിൽ എങ്ങനെ ആണ് റൂമ് എന്ന് അറിയില്ല അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ് ഒരു റൂമിൽ എങ്ങനെയാണ് അതിൻ്റെ റൂള് ഓക്കെ അപ്പോൾ നല്ല നല്ല ബാത്രൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് ആയിരിക്കില്ലേ പിന്നെ എങ്ങനെ ആണ് അതിൻ്റെ ട്രാവലിൻ്റെ കാര്യം വണ്ടി പിന്നെ അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഇല്ല ഇവിടം തൊട്ടേ വേണം ബസ്സ് ആയിരിക്കും നല്ലത് ഇത്രയും ആൾക്കാർ ഇല്ലേ അപ്പോൾ എനിക്ക് തോന്നണു ബസ്സ് അല്ലേ നല്ലത് എല്ലാവർക്കും ഒന്ന് സുഖമായിട്ട് ഇരിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാണ്ട് ആ ചെറിയ ബസ്സോ ചെറിയ ബസ്സ് അതിൻ്റെ എക്സ്പെൻസോ അപ്പോൾ ബസ്സിന് അനുസരിച്ച് അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെ ആയിരിക്കും

ആ ഓക്കെ അപ്പോൾ ഗൈഡ് ഞങ്ങളുടെ കൂടെ ബസ്സില് തന്നെ ഉണ്ടായിരിക്കുമോ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് അനുസരിച്ചുള്ള എക്സ്പെൻസ് കൂടുമോ ഓക്കെ അപ്പോൾ അവിടെ സീറ്റ് ഇതിന് എങ്ങനെ എ അവിടെ ചെന്നിട്ട് എത്ര ദിവസത്തെ ആണ് ഉദ്ദേശിക്കുന്നത് ആ പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യം എക്സ്പ്ലോറ് ചെയ്യണം അവിടുത്തെ സ്ഥലം അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് ഉള്ളിൽ ഫുള്ള് സ്ഥലങ്ങൾ എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വൺ ടു ഫൈവ് ഡെയ്സില് ഓക്കെ ഓക്കെ ഞങ്ങളിപ്പോൾ എല്ലാവരും വെക്കേഷനിലാണ് അപ്പം എല്ലാവരും റെഡി ആണ് ട്രിപ്പിന് പോകാനായിട്ട് അപ്പോൾ അഞ്ച് ദിവസം ഓക്കെ ആണ് ഞങ്ങൾക്ക്

ഓക്കെ അപ്പോൾ അതിന് ഓക്കെ പിന്നെ അവിടെ ഈ എന്താ പറയാ ഫുഡ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ആ ഞങ്ങടവിടുത്തെ ഫാമിലിയിൽ തന്നെ വെജിറ്റേറിയൻസും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിട്ടുള്ള ഫുഡും അവൈലബിൾ ആയിരിക്കും അല്ലോ അല്ലേ ഓക്കെ ആ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ അപ്പോൾ ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയണം ഞങ്ങൾക്ക് ആക്ച്വലി അറിയത്തില്ല എങ്ങനെയാണ് അതിൻ്റെ ബഡ്ജറ്റുന്ന് ഒക്കെ ഇപ്പോൾ പെർ ഡേ ഇപ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരാൾക്ക് എത്ര വരും ഏകദേശം ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിന് ഉള്ളിൽ ഒതുങ്ങുമോ

ഓക്കെ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഉള്ളിൽ ഒരാൾക്ക് ഒതുങ്ങില്ലേ മാം ഞങ്ങൾക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലീന്ന് അല്ല ഞങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോറ് ചെയ്യണം ആ പിന്നെ ഞങ്ങൾക്ക് അ ഇപ്പോൾ നല്ല തണുപ്പ് ഉള്ള സമയം ആണെങ്കിൽ നല്ലതായിരിക്കും ആ ഈ മാസം തന്നെ വേണം ഈ മാസം ആ മാം അത് ഞാൻ ഫാമിലിയിൽ ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യാം വീണ്ടും വിളിച്ചു പറയാം ഈ മാസം തന്നെ നോക്കിക്കോളു എന്തായാലും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള ആക്റ്റിവിറ്റീസ് ക്യാമ്പ് ഫയർ ടെൻഡിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയോ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർ ഒക്കെയുള്ളത് കാരണം ക്യാമ്പ് ഓക്കെ അപ്പോൾ സേഫ്റ്റി എൻഷറ് ചെയ്യണ്ടല്ലോ അല്ലേ ഓക്കെ താങ്ക്യൂ അപ്പം ഞാൻ ആ ഓക്കെ ഉച്ചയ്ക്ക് അപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് ആ ഡീറ്റെയിൽ എന്നിട്ട് ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് തരണം പിന്നെ ആ വണ്ടിയുടെ കാര്യം ഒന്ന് പറയണം അപ്പം ഞാൻ ഇവിടുത്തെ അ ആ ആ ഡേറ്റ് ഞാൻ അപ്പം കൺഫേം ചെയ്ത് പറയാം ആ ഇതാണ് നമ്പറ് ഓക്കെ താങ്ക്യൂ അപ്പം ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാം നാളെ ആ ഓക്കെ ബൈ